ഞാൻ ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇന്നും ഇപ്പോഴും എനിക്ക് ഇന്നലെ പോയത് പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ അത് ഓർക്കുമ്പോൾ ഭയങ്കരമായ സന്തോഷം തോന്നുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ വയനാട്ടിൽ എടക്കൽ ഗുഹയിൽ പോയപ്പോഴാണ് വളരെ അത് ഓർക്കുമ്പം തന്നെ മനസ്സിന് കുളിർമ തരുന്ന ഒരു കാഴ്ച്ചയാണ് കാരണം അത് എടക്കൽ ഗുഹ എന്ന് പറയുന്നത് പണ്ട് നമ്മുടെ ആധുനിക മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു അവിടെ അവർ അന്ന് അവർക്ക് സംസാരിക്കാൻ അറിയാത്ത സമയത്ത് അവർ കല്ലുകൾ കളൂടെ ഓരോന്നും കൊത്തിയൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പാടുകളൂം അതേപോലെ തന്നെ അവർ ജീവിച്ചിരുന്ന ആ സ്ഥലവും അവർ അന്ന് ചെയ്തിരുന്ന കാര്യങ്ങളുമെല്ലാം അവരവിടെ പു ഗുഹയിലെ പാറകളെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട് അതെല്ലാം കാണുന്നത് ഒരു പ്രത്യേകതരം അനുഭൂതി തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ അത് അവിടെ മഴയ് മഴക്കാലസമയത്ത് ആയിരുന്നു പൊയിക്കോണ്ടിരുന്നത് അപ്പം മഴ മഴയുംകൂടി ഉള്ളതുകൊണ്ട് ആ തണുപ്പും ആ മേലേക്ക് കയറും തോറും നമുക്ക് തണുപ്പ് കൂടി കൂടി വരുന്ന നമുക്ക് നന്നായിട്ട് അനുഭവപ്പെടാൻ സാധിക്കും പിന്നെ അതുപോലെത്തന്നെ പാറയിലൊക്കെ ചെറിയ വഴുക്കൽ ഉണ്ടായിരുന്നു എന്നാലും അതൊന്നും കാര്യമാക്കാണ്ട് ഞങ്ങള് മേലെ ചെന്നു മേലെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു കാഴ്ച വിരുന്നാണ് താഴെ ഒരുക്കിയിരിക്കുന്നത് അത് എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കരമായിട്ടും അത് അത് ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഒന്നും കൂടെ പോകാൻ ഒരു അത് തോന്നുന്ന ഒരു സ്ഥലം അവിടം തന്നെയാണ് പിന്നെ ഒത്തിരി കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ നമ്മൾ ഭക്ഷണം ഇട്ടു കൊടുക്കുമ്പം അത് കഴിക്കാൻ ഒക്കെ വരുന്ന ഒത്തിരി കുരങ്ങന്മാരും അവിടുത്തെ ഇതിൻ്റെ ഭംഗി ഒരുപക്ഷെ ഒരു പടി കൂട്ടുന്നുണ്ട് ആകെ പിന്നെ ആ കുന്നിൻ്റെ ഏറ്റവും മേലെ ചെന്ന് ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ചിലവഴിച്ചു അതിന് ശേഷം ഏകദേശം ഒരു വൈകുന്നേരം ആവാൻ നേരമായിരുന്നു അപ്പം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ രാതി ഒരു സൂര്യസ്തമയം കഴിഞ്ഞ ഒരിടത്ത് ശേഷം പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ സൂര്യാസ്തമയത്തിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയും അതിമനോഹരമായിട്ട് സൂര്യൻ നല്ല രീതിയിലത് താഴ്ന്ന് താഴ്ന്ന് താഴ്ന്ന് പോകുന്നത് ഞങ്ങൾക്ക് ആ ആകാശത്തിൻ്റെ നിറം പല വർണ്ണങ്ങളായിട്ട് ലൈറ്റ് മഞ്ഞയിൽ നിന്ന് ഏറ്റവും ഇളം മഞ്ഞയിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളയിൽ നിന്ന് അത് കടും ചുവപ്പാകുന്നത് അത്ര മനോഹരമായ രീതിയിൽ ഞാൻ ആസ്വദിച്ച ഒരു സ്ഥലം അവിടെ ആയിരുന്നു അവിടെ ഒരു പാറയിൽ ഇരുന്നു കൊണ്ട് ഞാന് അതിനെ വളരെ അധികം ആസ്വദിച്ചു ആ സൂര്യൻ്റെ കളർ മങ്ങി മങ്ങി അത് ആകാശത്ത് നിന്ന് മറഞ്ഞു പോകുന്ന ആ ഒരു കാഴ്ച അത് പറയാതിരിക്കാൻ വയ്യ സൂര്യാസ്തമയം ഇത്രയും ഭംഗി ഉണ്ടെന്ന് എനിക്ക് ആ കുന്നിൻ്റെ മെക മുകളിൽ നിന്ന് അത് അന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്

ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സൂര്യാസ്തമയം അതുപോലെ തന്നെ അത് ആ ഒരു യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഒരിക്കലും ജീവിതത്തിൽ ഞാൻ ഇനി ഒരിക്കലും മറക്കുകയില്ല എന്ന് ഉറപ്പുള്ള ഒരു യാത്രയാണ്